എൻ്റെ സഹോദരനിപ്പം ടെൻത്തിലാണ് പഠിക്കുന്നത് അവൻ്റെ വലിയൊരു ആഗ്രഹമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറാകണോന്നുള്ളതാണ് അപ്പം അവൻ പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗിന് ചേർന്ന് ഒരു എഞ്ചിനീയറാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം അവൻ്റെ ആഗ്രഹമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗായി നല്ല ശമ്പളം വാങ്ങുന്നൊരു ഉദ്യോഗസ്ഥനായിട്ട് സ്വന്തം കാലില് അല്ലെങ്കില് സ്വന്തം പൈസയില് ജീവിക്കണം മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് ജീവിക്കണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹം അപ്പം അവൻ്റെ ആഗ്രഹം നിറവേറ്റാൻ നിറവേറ്റണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവൻ സിവിൽ എഞ്ചിനീയർ എ എഞ്ചിനീയറിംഗ് ആവണമെന്ന് തന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു